ആ ഞാന് സന്ദര്ശിച്ചിട്ടുണ്ടായിരുന്നു ഞാന് നാട്ടിൽ ഉണ്ടാകലുണ്ട് പിന്നെ സ്കൂളിൽ കോളേജുകളിലൊക്കെ പഠിച്ച സമയത്ത് അപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഞാന് ഒരു പ്രാവശ്യം ബംഗ്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മറ്റ് മാക്സ് എക്സിബിഷനായിരുന്നു അപ്പോൾ എന്തിരനും കാര്യങ്ങളും എന്തിരൻ റോബോര്ട്ടിനെയൊക്കെയാണ് കണ്ടിരുന്നത് അപ്പോൾ പി ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ സിനിമ ഇറങ്ങണ എന്തിരൻ ഇറങ്ങാണെ അപ്പോൾ കണ്ടപ്പോൾ വിചാരിച്ചു ഈ സാധനമാണല്ലോ അവിടെയും കണ്ടത് അങ്ങനെ വിചാരിച്ചു അതു കഴിഞ്ഞു പിന്നെ ഞാനിങ്ങനെ എന്താ മെറ്റൽ എൻഗ്രേവിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആര്ട്ടിസ്റ്റ് ആണ് അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ എനിക്കിങ്ങനെ കാണാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തരുടെ ഈ ആര്ട്ട് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുണ്ടേ അങ്ങനെ മെച്ചപ്പെടുത്താം ഇനി അതല്ല അവരുടെ കാണാന് തന്നെ നല്ല ഭംഗിയാണല്ലോ അത് പിന്നെ ഇവിടെ നാട്ടിലൊരുപാട് ഉണ്ടാകലുണ്ട് പിന്നെ സ്കൂലുകളിലാണെന്നുണ്ടെങ്കിലും വര്ക്ക് എക്സ്പീരിയന്സിനായിട്ട് ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട് പിന്നെ അതിന്റെ സ്റ്റാൾ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അതിനായിട്ട് ടീച്ചര് ഉണ്ട് എല്ലാവര്ക്കും എല്ലാ കാര്യങ്ങളും കാണാന് പറ്റുന്ന രീതിയിലായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ മഞ്ചേരി ഇപ്പോൾ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കാണാന് പറ്റി അവിടെ ഞാനും ചെയ്യലുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഞാന് ഒന്നാമത് ഇങ്ങനെ മെറ്റൽ എൻഗ്രേവിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന്റെ കുറേ കാണാനും പറ്റി കുറേ കൂടുതല് കാര്യങ്ങള് പഠിക്കാനും പറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാകണതു കൊണ്ട്